യുവാക്കൾക്ക് പൊതുവെ പാരമ്പര്യ നൃത്തരീതീ അഭ്യസിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല അവർക്ക് എപ്പഴും ഓളമുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടം പിന്നെ പാരമ്പര്യ നൃത്തരീതി അവർ അഭ്യസിക്കേണ്ടി വരുന്നത് നിർബന്ധപൂർവ്വമാണ് നിർബന്ധിതമായ ഒരു അവസ്ഥയിൽ അവർ ചെയ്യുന്നതാണ് ഫോറ് എക്സാമ്പിള് നമ്മുടെ പള്ളികളിലൊക്കെ ഒരു മാർഗംകളി അതല്ലാ എങ്കിൽ മുസ്ലീങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒപ്പനകളി ഹിന്ദൂസിന് ആണെങ്കിൽ തിരുവാതിരകളി അതുപോലെ സോറി അത്പോലെ ടെമ്പിൾ ആട്ട്സ്സ് ഷേത്രകലകളുമായി ബന്ധപ്പെട്ട കലകൾ ഇതൊക്കെ കുട്ടികൾ പഠനകാലഘട്ടത്തിലൊരു മത്സര ഐറ്റംസ് ആയിട്ട് എടുത്ത് ഇത് പഠിക്കുന്നു അല്ലാതെ ഇത് പഠിച്ച് കളിക്കാന് അതല്ലായെങ്കിൽ ഇവർ വ്യാവസായികമായിട്ട് ചെയ്യും ഫോറ് എക്സാമ്പിൾ ഇപ്പഴത്തെ കല്യാണം വിവാഹപ്പാർട്ടികളൊക്കെ വളരെ എക്സ്പ്പെൻസീവ് ആണ് അതിൻ്റെ അകത്ത് ഈ ഈ നൃത്തരൂപങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് മാർഗംകളി ഉണ്ട് ഒപ്പനയുണ്ട് പിന്നെ അവർക്കെന്തൊക്കെ കാണിക്കാമോ അതൊക്കെ ഇപ്പം പുതിയ പുതിയ കൈകൊട്ടിക്കളികൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവർ ഒരു വരുമാനമാർഗമായി സ്വീകരിച്ച് ചെയ്യുന്നവരും ഉണ്ട് അല്ലാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് കുട്ടികൾ യുവാക്കളിത് ചെയ്യുന്നത് വളരെ റെയർ ആണ് അവരുടെ പഠനകാലഘട്ടത്തിൽ അവർ ചെയ്യും ഒരു കോമ്പറ്റേറ്റിവ് ഐറ്റം ആയിട്ട്